ഗുഡ് മോർണിംഗ് മാം ഞാൻ രോഹിത്താണ് എൻ്റെ പ്ലസ്ടു എക്സാം കഴിഞ്ഞു നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഒരു നയൻ്റി പെർസെൻ്റേജ് എബോവ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാം എളുപ്പം ആയിരുന്നു നന്നായിട്ട് പെർഫോമ് ചെയ്യാൻ പറ്റി മാം ആ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നല്ല മാർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട് അപ്പോൾ അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആ സയൻസ് സബ്ജെക്ടിൽ ഏതിലെങ്കിലും ഡിഗ്രി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം ആ എനിക്ക് ജിയോളജി പഠിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ട് പക്ഷെ വലുതായിട്ടൊന്നും അതിനെ പറ്റി ആ കോഴ്സിനെ പറ്റി അറിവ് ഒന്നും ഇല്ല മാം ആ ഓക്കെ മാം ഞാനും ജിയോളജി എടുക്കാമെന്ന് തന്നെ ആണ് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ ഈ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെ ഒക്കെ ആണ് ഒന്ന് പറയാമോ മാം ഓക്കെ മാം ഞാൻ റിസൾട്ട് വന്നിട്ട് വിളിക്കാം മാം ആ ഓക്കെ മാം താങ്ക് യു